ആ ഹാലോ ചേട്ടാ ആ ചേട്ടാ ചേട്ടനിവിടെ ലാൻഡ് നമുക്ക് ഇതാക്കുന്ന ചേട്ടനല്ലേ ലാൻഡ് ബ്രോക്കറല്ലേ അ ചേട്ടാ ഞാൻ ഇവിടെ എറണാകുളത്തുന്നാണ് വിളിക്കുന്നത് ആ ഞാനൊരു ഇത് പരസ്യം കണ്ടിട്ട് വിളിക്കാൻ കണ്ടിട്ട് ചേട്ടനെ വിളിച്ചിണ്ട് കോണ്ടാക്ററ് ചെയ്യാൻ തൃശ്ശൂരിന്ന് എനിക്ക് തൃശ്ശൂരൊരു പ്രോപ്പർട്ടി വാങ്ങാനായിരുന്നു ആ മിൽക്കാന്നാണ് ചേട്ടാ

നമുക്ക് ഒരു ടൗൺ വേണ്ട ടൗണിൽ വേണ്ട ഒരു ആ പത്ത് ഇരുപത് സെൻറ്റ് വേണം ഏഹ് ആ അകത്തോട്ട് കയറിയിട്ടൊരു കുറച്ച് ഏരിയ മതി അങ്ങനെ ആ ഒ ഒറ്റപ്പെട്ട പ്രദേശമല്ല ആ ആ സെൻറ്റിന് ആറ് ലക്ഷമു ഏഹ് ആ ആ അവിടെ എങ്ങനെയാണ് ചേട്ടാ വെള്ളോം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന്

ആ ആ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പൊരു പെട്ടന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ടൗണൊക്കെ ഉണ്ടല്ലോല്ലേ അവിടെ ആ അവിടെ ഏരിയാ വൈസ് എങ്ങനെയാണ് ചേട്ടാ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ വെള്ളം കയറുന്ന സ്ഥലം അങ്ങനെ പ്രശ്നം കാരണം വെള്ളം കയറണ സ്ഥലമൊക്കെ ആ വറ്റുക അങ്ങനെ വെള്ളം വറ്റുക അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ കിണറുകളിൽ ഇല്ലാലെ ആ അതല്ലാതെ വേറെ നമുക്ക് സ്ഥലങ്ങളൊന്നും ഇല്ല ഇത് മാത്രം ഉള്ളൂ ഇത് എവിടെയാണ് ഓ ടൗൺ ഏരിയയിൽ പോണമല്ലേ ടൗൺ ഏരിയ അല്ലാതെ ഇങ്ങനെ വേറേ സ്ഥലങ്ങളില്ല കുറച്ചും കൂടി റേറ്റ് കുറച്ചിട്ടായാലും റേറ്റ് കൊ കൊ

ആ ആ ആ സെൻറ്റിനൊരു നാലര അഞ്ച് ഓക്കേ ആണ്

ആ

ഓക്കേ സെൻറ്റിന് അഞ്ചായിട്ട്ല്ലേ എസ് ഓക്കേ പിന്നെ വേറെ അതെല്ലാതെ ഇത് എവിടെയാണ് വരുന്നത് സ്ഥലം എവിടെയാണ് വരുന്നത് തൃശ്ശൂർ ആ ചാലക്കുടി സൈഡ് ചാലക്കുടി സൈഡാണോ ഓക്കേ ആ ആ പിന്നെ വേറൊന്നുല്ല ചേട്ടാ ഞാൻ എന്നാൽ ഇത് ചേട്ടൻ ആ ടൗണ് ഏരിയത്തെയും കൂടൊന്ന് പറഞ്ഞേക്ക് നോക്കി വെക്കാം ആ ആ

ആ വാ ഹാ ഞാൻ എന്നാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ബാക്കി വീട്ടിൽ ചോദിച്ചിട്ട് പറയാട്ടോ ചേട്ടാ ഓക്കേ ശരി ഞാനാ അടുത്ത മണ്ടേ വരാൻ നോക്കാം ചേട്ടാ ഞാൻ ബാക്കി വരാൻ പറ്റുന്ന സമയമൊക്കെ ഞാൻ ചോദിച്ചിട്ട് പറയാം എല്ലാ കാര്യങ്ങളും

ഓക്കേ ചേട്ടാ ആ ശരിയെന്നാൽ ശരിയെന്നാൽ